ഹലോ ആ ഹലോ ടോപ്പ് ഫോം റെസ്റ്റോറൻറ്റായിരുന്നു ആ ഏതൊക്കെയായിരുന്നു ആ ഗീ റൈസ് ഉണ്ട് കറി നമുക്ക് മീറ്റ് കറി ഉണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ട് മീറ്റിൽ തന്നെ മട്ടനുണ്ട് ബീഫുണ്ട് അങ്ങനെ പല രീതിയിലുള്ള കറികളുണ്ട് പിന്നെ ബീഫ് ഉലത്തിയതുണ്ട് അങ്ങനെ ഏതാ വേണ്ടത് മാഡത്തിന് ആ എല്ലാം ഉണ്ട് ആ എല്ലാം ഉണ്ട് ആ അറേബ്യൻ ഫുഡ് ആയിട്ടുള്ളതുണ്ട് നമുക്കിപ്പോൾ മാഡത്തിനെങ്ങനെ ആണോ അത് പ്രീപ്പയര് ചെയ്ത് വേണ്ടത് നമ്മൾ അതുപോലെ ചെയ്ത് തരും പത്ത് പേർക്ക് പത്ത് കിലോമീറ്ററുണ്ടല്ലേ കോഴിക്കോടുന്നല്ലേ ഓക്കെ ആ ലൊക്കേഷൻ കറക്റ്റ് ഒന്ന് പറയാമോ ഇടപ്പള്ളീല്ലേ ഓക്കെ ഓക്കെ നമ്മളവിടെ ആ എത്തിച്ചേരാം കുഴപ്പമില്ല നമുക്കിവിടെ അടുത്ത് തന്നെ ആണല്ലോ ഒരു പത്ത് ആ അപ്പം

ആ ഓക്കെ സ്പെഷ്യൽ ടൈപ്പ് ഉണ്ടല്ലോ ആ ഓക്കെ നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് അതായത് ഒരു പ്ളേറ്റിൽ തന്നെ രണ്ട് ഇതായിട്ടുള്ള കറി ഉണ്ട് അതായത് മൊട്ടയും ഈ മീറ്റും കൂടി വെച്ചിട്ട് പൊതിഞ്ഞ് വെക്കും എന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു കറിയും തൊട്ടിപ്പുറത്ത് വേറൊരു കറി ആയിരിക്കും രണ്ട് സൈഡായിട്ട് രണ്ട് കറികളുണ്ട് അപ്പം അതിന് റേറ്റ് ലേശം കൂടുതലാണ് അതാ ഒരു കറിക്ക് നാന്നൂറ് രൂപേൻ്റടുത്ത് വരും പ്രശ്നല്ലല്ലോ അപ്പം അത് വെക്കാല്ലേ ആ ഓക്കെ വേണായിരുന്നുല്ലേ ഇപ്പംനമുക്ക് സ്റ്റാർട്ടറ് വരുന്നുണ്ട് സ്റ്റാർട്ടറ് മറ്റേ ചിക്കൻ ലോലിപോപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് അതൊക്കെ വേണോ വേണായിരുന്നല്ലേ ഓക്കേ ഓക്കേ ആ അത്രേന്നും മേളിൽ ഏകദേശം നമുക്കൊരു ഫൈവ് അതിൻ്റെ അടുത്തെ വരൂള്ളു ഫൈവ് തൗസൻഡ് ആ റേറ്റേ വരുള്ളു അതിൻ്റെ ഉള്ളിലെ വരുള്ളു ഇത്രേന്നും വരില്ല ആ ഉണ്ട് ഉണ്ട് പുഡ്ഡിംഗ് ആ പുഡ്ഡിംഗ് ഏത് പുഡ്ഡിംഗാ വേണ്ടത്

ഓക്കെ ഓക്കെ ആ പത്ത് ഓക്കേ ഓക്കെ ആ ഉണ്ട് ഉണ്ട് എല്ലാം നമ്മളതിൻ്റെ കൂടെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല എല്ലാം റെഡി ആക്കി തരാം ആ എല്ലാം ഉണ്ടാകും അതൊക്കെ അതിൻ്റെ മോളിൽ തന്നെ ഓർഡറ് ചെയ്യുമ്പോൾ സെറ്റാക്കി തരും ആ ഉണ്ട് അത് വെയ്ക്കണോ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ ഓക്കേ ഓക്കെ ഞാനെന്നാൽ അയക്കുവാണ് ക്യൂ ആർ കോഡ് മാക്സിമം പോയാൽ ഒരു വൺ അവറ് നമുക്കത് പ്രീപയറ് ചെയ്യതെടുക്കാൻ വേണ്ടീട്ട് ഒരു വൺ അവറ് മാക്സിമം പിന്നെ അത്രയെ ഉള്ളു അത്രയെ വേണ്ടുള്ളു നമുക്ക് ആ ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ ഓക്കെ